ആ എന്തായിരുന്നു സാറെ വേണ്ടത് ഓക്കെ ഓക്കെ ഞങ്ങൾ പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ആണ് സീ ഫുഡ് ആണോ അതോ നമ്മുടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണോ രാവിലത്തെ പ്രഭാതഭക്ഷണങ്ങളാണോ അതോ ഉച്ചത്തെ സദ്യയെക്കുറിച്ചാണോ രാത്രിത്തെ ഫുഡിനെക്കുറിച്ചാണോ സാറിന് അറിയേണ്ടത് ഓ നമുക്ക് സീ ഫുഡില് സദ്യ പോലെ വരുന്നുണ്ട് നമ്മൾ സദ്യ കഴിക്കുവല്ലോ ആ നമ്മൾ സാധാരണ വെജിറ്റേറിയനിൽ പിന്നെ പച്ചക്കറി സദ്യ കഴിക്കുന്നപോലെ സീ ഫുഡിലും സദ്യ വരുന്നുണ്ട് അങ്ങനത്തെ സദ്യ ഒന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും നമ്മൾ അതായത് പിന്നെ ഞണ്ടുണ്ടാവും പ്രോൺസ് ഉണ്ടാവും പിന്നെ എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ടാവും നമുക്കൊരു എങ്ങനൊക്കെ ആ കൂട്ടുകറിന്ന് അവിയൽന്നൊക്കെ പറയില്ലേ നമ്മൾ പച്ചക്കറീല് അതേപോലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും നമുക്ക് അതിൻ്റെ കൂടെ ആ അങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ആ അത് സൂപ്പർ ഐറ്റംസ് ആണ് കഴിച്ചുനോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പിന്നെ എന്താപറയാ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണത് ആ അതുപോലത്തെ നമുക്ക് പിന്നെ കപ്പയും മീൻകറീം ഉണ്ട് നല്ല മത്തിക്കറീം കപ്പയും ഉണ്ട് പിന്നെ അതുപോലെത്തന്നെ അപ്പോം മീൻകറീം വരുന്നുണ്ട് അപ്പോം ഇറച്ചിക്കറീം വരുന്നുണ്ട് അപ്പോം മൊട്ടസ്റ്റൂ അതുപോലെ വെജിറ്റേറിയൻ കറികളും വരുന്നുണ്ട് പാലപ്പം വരുന്നുണ്ട് ഓക്കെ സാറെന്നാൽ വരുന്നതെന്നു പറഞ്ഞാൽ മതി നമ്മൾ റെഡി ടു കുക്ക് ആണ് സർ വരുന്ന സമയത്തു അപ്പം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ തന്നാൽമതി അല്ലെങ്കിൽ സർ പിന്നെ റെസ്റ്റോറൻറിൽ വരുമ്പം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അവിടേക്ക് ഡെലിവറിയുണ്ട് വീട്ടിലോട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ റെസ്റ്റോറൻറിൽ വന്നിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം എന്തായാലും മസ്റ്റ് ട്രൈയാണ് നമ്മുടെ പിന്നെ സീ ഫുഡ് സദ്യ അതൊന്നു ട്രൈ ചെയ്തുനോക്കാം ആയിക്കോട്ടെ സർ